ഗുഡ് ആഫ്റ്റർനൂൺ മാഡം ഹലോ ആ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ ആ ആ

ഓ അപ്പോൾ ഡിസേർട്ടൊന്നും ട്രൈ ചെയ്തില്ലായിരുന്നോ ആ ബാക്കി ഫുഡ്ഡിൻ്റെ എരിവും പുളിയും അതൊക്കെ കറക്ട് ആയിരുന്നില്ലേ എല്ലാം ആ ഓക്കെ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളു അപ്പം അതിൻ്റെ കുറച്ച് കുറവുകൾ ഒക്കെ ഉണ്ട് ഇപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം എന്തായാലും എല്ലാം പെർഫെക്ട് ആക്കിത്തരാം ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇനി ഇപ്പം പുതിയത് ആയിട്ട് പുതിയ മെനു ഒക്കെ വരും ഇപ്പോൾ ഒരുപാട് ഡിസേട്ട് കളും ഷേക്കും സല്ലാഡും ഓക്കെ പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ട് അടുത്ത തവണ വരുമ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ആ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഓക്കെയാക്കാം ഈ തവണ എനിക്കത്ര കറക്റ്റായിട്ടെങ്ങനെയാ ഡിഷ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലായിരുന്നു ജോയിൻ ചെയ്ത് രണ്ട് മാസം ആയിട്ടുള്ളു ഞാൻ പറഞ്ഞില്ലെ അപ്പോൾ ഇനി എല്ലാം എല്ലാം ഡി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം ആ ഓക്കെ മാഡം വരുമ്പം എന്തായാലും വിളിക്കൂ അപ്പോൾ ഓൾ ദ ബെസ്റ്റ്

ആ ഓക്കെ ഓക്കെ